നമ്മളുടെ പ്രദേശത്തു കളിക്കുന്ന കായിക ഇനങ്ങളെന്നു പറഞ്ഞാൽ ഒരുപാട് കായിക ഇനങ്ങളുണ്ട് സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ കളിക്കപ്പെടുന്ന കളികളിൽ നിന്നു വ്യത്യസ്തമാണോ എന്നൊക്കെ ചോദിച്ചാൽ വ്യത്യസ്തമൊന്നുമല്ല പിന്നെയെന്നു പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്തു നമ്മൾ സാറ്റ് ഐസ് ആൻഡ് വാട്ടറ് അങ്ങനെയുള്ളതൊക്കെ കളിക്കാറുണ്ട് അതേപോലെത്തന്നെയാണ് ഇപ്പോൾ ആൺകുട്ടികളാണേൽത്ത ന്നെ പെൺകുട്ടികളൊക്കെത്ത ന്നെ ഇപ്പോൾ പിന്നെ ക്രിക്കറ്റ് ആണെങ്കിൽ തന്നെ ഫുട് ബോൾ അങ്ങനെയുള്ള ഇതൊക്കെ കളിക്കുന്നുണ്ട് ഗെയിമുകളൊക്കെ കളിക്കുന്നുണ്ട് അത് എന്നു പറഞ്ഞാൽ മറ്റേ സംസ്ഥാനത്തെ സംസ്ഥാനത്തിൽ ഉള്ള കളികൾ തന്നെയാണ് ഇവിടെയും കളിക്കുന്നത് ഇല്ലാതെ ഞങ്ങൾക്കായിട്ട് അങ്ങനെ വേറൊരു കളികളോ ഒന്നും ഇല്ല ഈ പറഞ്ഞ സാറ്റ് തോട്ടാപ്പിടുത്തം ഓടിപ്പിടുത്തം അങ്ങനെയുള്ള കളികളൊക്കെ തന്നെയാണ് അല്ലാണ്ട് വേറൊരു കളികളോ അങ്ങനെയൊന്നും ഇല്ലാ എന്നു തന്നെയാണ് പറയാനുള്ളത് പിന്നെയെന്നു പറഞ്ഞാൽ ക്രിക്കറ്റ് ഫുട് ബോൾ അങ്ങനെയുള്ള മേഖലകളിൽ ആണുങ്ങൾ ആണുങ്ങളായിരുന്നു കൂടുതലും കളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽത്തന്നെ പെണ്ണുങ്ങൾ ചെറുപ്പകാരികളൊക്കെ ഇപ്പോൾ ക്രിക്കറ്റിലേക്കും ഫുട്ബോളിലേക്കും പോകുന്നുണ്ട് അവരെ അങ്ങനെയുള്ള മേഖല വീട്ടിൽ ഒതുങ്ങി നിൽക്കാതെ ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ പോയിട്ട് വിദേശത്തൊക്കെ പോയിട്ടൊക്കെ ആണെങ്കിൽ കളിക്കുമെന്നൊക്കെ ഉണ്ട് ഇന്ത്യൻ ടീമിനോടൊപ്പം കളിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്